കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളാണ് നെല്ല് തേങ്ങ കുരുമുളക് അടയ്ക്ക അതുപോലെതന്നെ കശുവണ്ടി കപ്പ റബ്ബറ് തുടങ്ങിയവയൊക്കെ അതിനു പുറമെ ആട് പശു കോഴി എന്നിവയൊക്കെ പന്നി എന്നിവയൊക്കെ വളർത്തുന്ന ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ പ്രധാന വളമായിട്ട് നമ്മളുപയോഗിക്കുന്നത് ഈ ചാണകം അത് ആ അത് ആട്ടിൻ കാട്ടം ഇവയൊക്കെത്തന്നെയാണ് ഈ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും റബ്ബറ് ഉപയോഗിക്കുന്ന ആൾക്കാര് കുരുമുളകിനൊക്കെയുള്ള ആൾക്കാര് മിക്കവാറും തോടിൻ്റെ സൈഡിലായിരിക്കും ഇവരുടെയൊക്കെ കൃഷി വരുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കൃഷി കൃഷിക്കായിട്ടുള്ള ജലസേചന മാർഗ്ഗമായിട്ട് ഉപയോഗിക്കുന്നത് തോട്ടിലെ വെള്ളം അതുപോലെതന്നെ കിണറിലെ വെള്ളം ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് മാത്രമല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനിക രീതിയില് കൃഷി ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ജില്ലയിലുണ്ട് അതായത് മണ്ണിന് കോട്ടം വരാത്ത രീതിയില് എന്നാല് അത്യാധുനികമായ രീതിയില് കൃഷി രീതി ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് കൃഷി കൃഷി സാധാരണക്കാര് മാത്രമല്ല പഠിച്ച് വിദ്യാസമ്പന്നരായ ആൾക്കാരും ഈ കൃഷിയിലേക്ക് വരുന്നുയെന്നുള്ളത് ഈ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് വരുന്നുയെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊര് കാര്യമാണ് അപ്പോൾ നമ്മുടെ റബ്ബറ് കൃഷി തന്നെ ആണെങ്കിലും നമ്മള് ഒരുപാട് നമ്മുടെ ജില്ലയില് റബ്ബറ് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കരുമുളകാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ മലബാർ മലമ്പ്രദേശങ്ങളില് അതായത് നമ്മുടെ ഇരുട്ടി ശ്രീകണ്ഠാപുരം ആ ഒരു സൈഡിലൊക്കെ കൂടുതലായിട്ടും റബ്ബറ് ആട് കോഴി അത് മാത്രമല്ല കുരുമുളക് ഇങ്ങനെയൊക്കെ ഉള്ള കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ച് പയ്യന്നൂര് കണ്ണൂർ ആ ഭാഗത്തൊക്കെ പോവുമ്പത്തേനും തേങ്ങ നെല്ല് അടയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള കൃഷിയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പിന്നെ മണ്ണില് ജൈവ വളമായി ജൈവ വളം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ അടിവളമായിട്ട് നടീൽ മിശ്രിതമായിട്ട് ഉപയോഗിക്കുന്നത് എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ ആട്ടിൻ കാട്ടം പിന്നെ കംപോസ്റ്റ് നിർമിക്കുന്ന പച്ചക്കം പച്ച പച്ചക്കറി കമ്പോസ്റ്റ് അതുമാത്രമല്ല മണ്ണിരക്കമ്പോസ്റ്റൊക്കെ നമ്മള് ഈ ഇതിൻ്റെ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്